ആരോഗ്യകരമായിരിക്കാൻ നൃത്തത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് ഇന്നത്തെ ആളുകൾക്കിടയിൽ ഈ നൃത്തം ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് വലിയ വലിയ ഗുണങ്ങളാണ് ഇന്ന് കിട്ടുന്നത് നൃത്തത്തിലൂടെ നമ്മൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന അതുപോലെ തന്നെ നൃത്തം ചെയ്യുന്നതിലൂടെ പലർക്കും അതൊരു പുതിയൊരു അനുഭൂതിയാണ് മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും ആനന്ദം കൊടുക്കുന്നൊരു പ്രവർത്തനമാണ് നൃത്തം എന്ന് പറയുന്നത് നൃത്തം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത കൊളസ്ട്രോളും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വസ്തുക്കളും വിയർത്ത് പുറത്തു പോവുകയും നമ്മൾക്ക് നല്ല ഒരു ആരോഗ്യം കൈവരിക്കാൻ ഇത് ഉപകാരപ്പെടുകയും ചെയ്യുന്നുണ്ട് നൃത്തം ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനും ഇതേ പ്രവർത്തന ഫലമാണ് ലഭിക്കുന്നത്